ഹലോ ആ അതേ പറയൂ ആരായിരുന്നു ആ ഓക്കെ

ഓ താമസിക്കാൻ അത്യാവശ്യം റിസോട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഓരോ പ്ലെയ്സിനനുസരിച്ച് ഇരിക്കും ഇപ്പോൾ വയനാട്ടിലൊക്കെയാണെങ്കിൽ ആ എന്താ പറയുക തിരുനെല്ലി ഉണ്ട് തിരുനെല്ലി കുറേയുണ്ട്

ഇപ്പോൾ തിരുനേ ആ അത് അത് റെഡിയാക്കിത്തരാം എന്തായാലും ഇപ്പോൾ വയനാട്ടിലിപ്പോൾ എത്ര ദിവസത്തേക്കായിരിക്കും ഉണ്ടാവുക ആ അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഓരോ സ്ഥലങ്ങള് നോക്കാം ഇപ്പോൾ തിരുനെല്ലി ഉണ്ട് അതുപോലെത്തന്നെ കുറുവയിൽ ഉണ്ട് അതുപോലെത്തന്നെ വൈത്തിരിയുണ്ട് അങ്ങനെ അഞ്ചാറ് സ്പോട്ടുണ്ട് പിന്നെ അതുപോലെത്തന്നെ എലിഫന്റ് വാലിയുണ്ട് പിന്നങ്ങനെ ആ മൂന്നാറിൽ ഉണ്ട് മൂന്നാറിൽ ഒരു റിസോർട്ടുണ്ട് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെയുള്ള റിസോർട്ടാണ് പിന്നെ എന്താ പറയുക വൈത്തിരിയുള്ള റിസോർട്ട് അടിപൊളി റിസോർട്ടാട്ടോ ഫുഡും കാര്യങ്ങളും ആക്കോമഡേഷനൊക്കെ അവിടെത്തന്നെയുണ്ട് തിരുവനന്തപുരത്ത് ഒരു വള്ളിയൂർ റിസോർട്ടുണ്ട് ആ അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ലൊക്കേഷൻ എവിടെയാ എത്തുന്നത് അവിടെ നോക്കിയാപ്പോരേ ആ ഇപ്പോൾ ആ നമ്മളിപ്പോൾ എത്തുന്ന സമയമനുസരിച്ച് നമുക്ക് മുൻകൂറായിട്ടു നോക്കാം അല്ലാണ്ടിപ്പോൾ നമുക്ക് കറക്ട് പറയാൻ പറ്റില്ലല്ലോ

ആ അത് ആ അതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് എന്തായാലും നല്ല റിസോട്ടൊക്കെയായിരിക്കും ഉണ്ടാവുക പിന്നെ എമൗണ്ടിന്റെ കാര്യത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ആ പോവുന്നതുകൊണ്ട് ആ ആ അത് അതുണ്ട്

ആ നിങ്ങൾക്ക് പിന്നെ പീസ്ഫുൾ സ്ഥലങ്ങൾ അങ്ങനെയാണോ നോക്കുന്നത് അതോ ടൗൺ ഏരിയയുടെ അടുത്തുള്ള റിസോർട്ട് ആയാലും മതിയോ

ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കേ ഡീറ്റൈൽസൊക്കെ വാട്സ്ആപ് ചെയ്യാട്ടോ